ജലദോഷം ഭേദമാകാനായിട്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ പ്രധാനമായിട്ടും ആവി പിടിക്കുകയാണ് ചെയ്യാറുള്ളത് ആവി പിടിക്കുക എന്ന് പറയുമ്പോൾ ചൂട് തിളച്ച വെള്ളം ഒരു കലത്തിൽ എടുത്ത് അത് അത് മൂക്കു വഴി ശ്വസിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ മൂക്കിലൊക്കെ കട്ടിയായിട്ട് ഇരിക്കുന്ന അത് പെട്ടെന്ന് ഉരുകി അത് ലിക്വിഡ് ആയിട്ട് പോവും അപ്പം മൂക്ക് അടഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് തുറക്കുകയൊക്കെ ചെയ്യും നല്ല ഒരു ആശ്വാസം കിട്ടും അതാണ് മെയിനായിട്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ ചെയ്യാറുള്ളത് പിന്നെ അല്ലാതെ നാട്ടുവൈദ്യമെന്ന് പറഞ്ഞാൽ ആയുർവേദ മരുന്നുകൾ അതായത് തുളസി പനിക്കൂർക്ക ഇല അതുപോലെയുള്ള ഔഷധ ചെടികൾ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് ആ വെള്ളം ഞങ്ങൾ കുടിക്കാറുണ്ട് അത് ജലദോഷമെന്ന് മാത്രമല്ല ആരോഗ്യം കൂട്ടാൻ വേണ്ടി അങ്ങനത്തെ ഇതൊക്കെ ചെയ്യാറുണ്ട് പിന്നെ പേരയുടെ ഇല പേരമരത്തിൻ്റെ ഇല പേരയ്ക്ക മരത്തിൻ്റെ ഇല വെള്ളത്തിലിട്ടും ഞങ്ങൾ വെന്ത് കുടിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ മുരിങ്ങ ഇല ഞങ്ങൾ ഭക്ഷണത്തിലൊക്കെ ചേർക്കാറുണ്ട് അപ്പം ഇതൊക്കെ ഇതൊക്കെ പ്രധാനമായിട്ടും രോഗം വരാതെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് അപ്പം പെട്ടെന്ന് ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആവി പിടിക്കൽ ആവി പിടിക്കുകയാണ് ഞങ്ങൾ മെയിനായിട്ടും ചെയ്യാറുള്ളത് പിന്നെ അതിൻ്റെ കൂടെ ഈ പനിക്കൂർക്ക ഇല തുളസിയൊക്കെയും ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട് പിന്നെ അത്രയാണ് മെയിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത്